മുപ്പത്തൊന്ന് പൂജ്യം രണ്ടായിരത്തി അഞ്ച് എട്ട് രണ്ട് ര രണ്ടായിരത്തി മൂന്ന് നാല് ഏഴ് രണ്ടായിരത്തി അ ആറ് പത്ത് ഒമ്പത് രണ്ടായിരത്തി എട്ട് അഞ്ച് നാല് രണ്ടായിരത്തി ഒമ്പത്